മേ ഐ കമിൻ

എൻ്റെ വീട് പാലപ്പുറം ഒറ്റപ്പാലം ആണ് പഠിച്ചത് ഒറ്റപ്പാലം ഗവൺമെൻറ്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ഓ അതെ അതെ നല്ല കുട്ടി ആയിരുന്നു പത്തില് ഫുൾ എ പ്ലസ് ആയിരുന്നു പ്ലസ് ടു പിന്നെ ഹയർ പ്ലസ്ടൂല് നാല് എ പ്ലസ്സും രണ്ട് എ ആയിരുന്നു ഹ്മ് ആ അതെ അതെ കമ്പ്യൂട്ടർ സയൻസ് ആയിരുന്നു അതെ അതെ എൻ്റെ പേഷൻ ഒരു എഞ്ചിനീയർ ആവണന്ന് ആയിരുന്നു ഐ വാണ്ട് ടു ബി എനിക്ക് ഒരു സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആവണന്ന് ആയിരുന്നു താൽപ്പര്യം അപ്പം അതുകൊണ്ട് ഹ്മ് കമ്പ്യൂട്ടർ സയൻസില് എ പ്ലസ്സാ ആ ഈസിയാണ് ഏയ് ഇവിടെ ഞാൻ ആ ഫാക്കൽറ്റീസ് പഠിപ്പിക്കുന്ന രീതി അനുസരിച്ച് നമ്മൾ അവിട ബേസ് മാത്രം പഠിച്ചിറ്റ് ആണ് ഈ പ്ലസ് ടൂന്ന് വരുന്നത് പിന്ന എന്നിട്ട് നമ്മട ഒരു ഫ്യൂച്ചർ ആണല്ലൊ ഒരു കോളേജിന്ന് പറയുന്നത് ഇവിടത്തെ ബേസ് ചെയ്തിട്ട് ഓക്കെ ഓക്കെ ആ അതെ അതെ കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറിംഗ് ആണ് എടുക്കുന്നത് ഏയ് ഇല്ല ഇല്ല ജസ്റ്റ് ഇപ്പം ഞാൻ പ്ലസ്ടു കഴിഞ്ഞ് ഇറങ്ങി അല്ലെ ഉള്ളൂ അതുകൊണ്ട് ഒന്നും ചെയ്തിട്ട് ഇല്ല ആ ചെയ്ത് ചെയ്തിരുന്നു ജെഈ മെയിൻ എഴുതിയിരുന്നു അഡ്വാൻസ് ഡിസ് ക്വാളിഫയ് ആയി മാർക്ക് ഇല്ല കോച്ചിംഗിന് കോച്ചിംഗിന് ഒക്ക പോയിരുന്നു പക്ഷെ ഈ കോറോണേടെ ഈ സമയം ആയത് കൊണ്ട് നന്നായിട്ട് ക്ലാസുകൾ പോയില്ല ഓൺലൈൻ ആയിരുന്നു അപ്പം അങ്ങനെ ഒഴപ്പി ഏയ് ഇവിടെ നന്നായി പഠിക്കും റാങ്ക് ഹോൾഡർ ആവണന്ന് ആണ് ആഗ്രഹം

ഓക്കെ ഏയ് കുഴപ്പം ഒന്നും ഇല്ല ആ കുഴപ്പം ഇല്ല കുഴപ്പം ഇല്ല ബാഗ് ഇല്ല ഇന്നല പിന്നെ പിന്നെ സുഖം ആണോ ഓക്കെ ശരി ഓക്കെ താങ്ക്യൂ